കുതിരസവാരി പണ്ടും ഇപ്പഴും ഹൈലൈറ്റ് ആയിട്ട് നിയ്ക്കുന്ന ഒന്നാണ് അതായത് പണ്ട് കാലത്തും അത് അതിന് ആൾക്കാര് വരാറുണ്ട് അതായത് കുതിരസവാരി ചെയ്യാൻ വേണ്ടി ആൾക്കാര് എന്നും ആഗ്രഹിക്കുന്നവരും ആണ് അത് ആഗ്രഹിച്ച് ചിലര് ഇങ്ങനെ തേടി എത്തുന്നവരും ഉണ്ട് ഈ കാലത്തും അങ്ങനെ തന്നെ ആണ് അത് ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരും ഒക്കെ കൂടുതൽ ഉണ്ട് കുതിരസവാരീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്താനും അതുപോലെ തന്നെ നമ്മടെ മസിലും കാര്യങ്ങളുമൊക്കെ നിലനിർത്താനും നമ്മുടെ ഹൃദയത്തിനൊക്കെ നല്ലതാണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കുതിരസവാരി ഇപ്പോൾ നമുക്ക് ജിമ്മിൽ പോകുന്നത് ഒഴിവാക്കാം അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നത് ഒഴിവാക്കാം അതുപോലെ തന്നെ നമുക്ക് തടി കൂടുതലാണ് അല്ലെങ്കിൽ തടി കുറയ്ക്കണം അല്ലെങ്കിൽ മസിൽ ഇല്ല നമുക്ക് മസിൽ ഇങ്ങനൊക്കെ പറഞ്ഞ് ഫുഡ്ഡ് കാര്യങ്ങളൊക്കെ കഴിക്കാണ്ടിരിക്കുന്നു ഡയറ്റ് ചെയുക അങ്ങനത്തെ കാര്യങ്ങളക്കെ ഉണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കുതിരസവാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഒന്നുമില്ല അതായത് നമ്മള് ജിമ്മിൽ പോകുന്നതും വ്യായാമം ചെയ്യുന്നതും ഫുഡ്ഡ് കഴിക്കാണ്ടിരിക്കുന്നതും ഒക്കെ നിർത്തി നമുക്ക് ഈ കുതിരസവാരി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യത്തിനും മസിൽനും അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഹെപ്പേത്തനും എല്ലാത്തിനും നല്ലതാണ് അതുകൊണ്ടു തന്നെ എല്ലാ ആൾക്കാർക്കും ഈ കുതിര സവാരീനോട് ചെറിയ ഒരു ഇഷ്ടമുണ്ടാകുവായിരിക്കും എല്ലാവരും ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒന്നാണ് ഈ കുതിര സവാരി